ഇപ്പം ഞാന് ചെയ്യുന്ന ഒരു പാചകവിധി ഉദ്ദേശിച്ചതുപോലെ ശരിയായില്ലെങ്കിൽ അതിന് അടുത്ത സ്റ്റെപ്പെന്താണോ വേണ്ടത് അതു ഞാൻ ചെയ്യാന് നോക്കും ഇപ്പോൾ ഒരു എക്സാംമ്പിള് പറയാം ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഒരു ചിക്കൻ കറി ഞാനിപ്പോൾ വച്ചു അപ്പോൾ അതിനകത്ത് ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി അപ്പം ഒന്നുകിൽ ഞാന് ആദ്യം അമ്മയോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കും അവർ പറയുന്നതുപോലെ ഞാൻ ചെയ്യും പിന്നെ എനിയ്ക്കറിയാവുന്ന ഒരു രീതി ഉപ്പൊക്കെ കൂടിപ്പോയിക്കഴിഞ്ഞാൽ അതു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കിഴങ്ങ് കണ്ടിച്ചിട്ട് കഴിഞ്ഞാൽ അത് അതിന്റെ ഉപ്പ് വലിക്കും കുറയും എന്നുള്ളത് അറിയാം എന്നിട്ടും കുറഞ്ഞില്ല എങ്കില് ഞാന് അടുത്തൊരു ഓപ്ഷനായിട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് ആ ഗ്രേവി മാറ്റിയിട്ട് അതിനകത്തുള്ള ചിക്കന് പീസ്സ് വച്ചിട്ട് ഒന്നുകിലത് ഫ്രൈ ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ അത് സ്മാഷ് ചെയ്ത് എടുത്തിട്ട് വേറെന്തെങ്കിലും ഉണ്ടാക്കാന് പറ്റുമോ വേറെന്തെങ്കിലും ഒരു റെസിപ്പിയിലേക്ക് ഞാൻ അത് കൊണ്ടുപോകും അതായത് ഇപ്പം ആ ഒരു ചിക്കന്റെ ഇത് വച്ചിട്ട് കട്ട്ലെയ്റ്റോ അല്ലെങ്കിൽ ചിക്കന് റോളോ അങ്ങനെ എന്തെങ്കിലും ഒരു വിഭവം അടുത്തൊരു വിഭവം ഉണ്ടാക്കാനായിട്ട് ഞാൻ അത് ശ്രമിക്കും ഇങ്ങനെയാണ് ഞാന് എന്റെ എന്തെങ്കിലുമൊരു കാര്യം തെറ്റിപ്പോയാൽ അതു നടന്നില്ലെങ്കിൽ ഞാനങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാന് നോക്കും